ബൈക്ക് എന്നത് കുഞ്ഞുകാലം മുതലുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് ആദ്യത്തെ ബൈക്ക് കിട്ടുന്നത് ഞാൻ എനിക്ക് ഇരുപത്തി രണ്ട് വയസുള്ളപ്പോഴാണ് അതിന് മുമ്പ് ഞാൻ ബൈക്ക് പലരെ കുടുകാരുടെ അടുത്തു നിന്നും മാമന്മാരുടെ അടുത്തു നിന്നൊക്കെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിരുന്നു എനിക്ക് സ്വന്തമായി ഒരു ബൈക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്നാം വയസ്സിൽ ആണ് ഞാൻ അത് എന്നും രാവിലെ തൂത്തു തുടച്ചു കഴുകി വൃത്തിയാക്കി അതുപോലെ ആണ് കൊണ്ട് നടന്നിരുന്നത് വേണ്ട രീതിയിൽ റേസിങ്ങും എല്ലാം വേണ്ട രീതിയിൽ വേണ്ടത് യഥാസമയം നടത്തി കൊണ്ട് നടന്നിരുന്നതാണ് ബൈക്ക് ആ ബൈക്ക് കൊണ്ട് ഞാൻ വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഹിൽ സ്റ്റേഷൻസ് അങ്ങനെ പ്രകൃതിരമണീമായ സ്ഥലങ്ങൾ ഇതൊക്കെ ബൈക്കിൽ പോകുന്നത് എൻ്റെ ഒരു ഹരമായിരുന്നു വേണ്ടത് അപ്പം അതുകൊണ്ട് കൂട്ടുക ഫ്രണ്ട്സുമൊത്ത് പല പലവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ദീർഘ യാത്ര നടത്തിയിട്ടുണ്ട് ചെറുപ്രായത്തിൽ അതൊരു രസമായിരുന്നു അപ്പം ഇപ്പം പ്രായമായതോടു കൂടെ ബൈക്ക് യാത്രകൾ നമുക്ക് ഒരു ദൂര യാത്രകൾക്കുള്ള ശരീരിക ക്ഷമത നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ പിന്നെ ബ്രൈക്കെടുത്ത് കുറെയൊക്കെ ആസ്വച്ചു പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ കലകങ്ങളിൽ ഓക്കെ ആണ് ആക്ച്വലി അങ്ങനെ ഞങളൂടെ ഊട്ടി കൊടക്കെനാൽ ബാംഗ്ലൂർ മൂന്നാർ എവിടെയക്കെ എന്നീ സഥലങ്ങളിലെല്ലാം ബൈക്കുമായി പോയിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മളുടെ കാലാവസ്ഥ ഇന്നത്തെ കാലത്തെ ബൈക്ക് ദീർഘ ദൂര യാത്രകളിൽ വളരെ ബുദ്ധിമുട്ടാണ് ബൈക്കുമായി പോവുക എന്നുള്ളത് കാരണം അതി തീവ്രമായ ചൂടും ഹുമിഡിറ്റിയുമെല്ലാം കാരണം നമുക്ക് വേണ്ട രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്തു ബയക്ക് ഓടിക്കുക അസാധ്യമാണ് ഇന്നത്തെ കാലത്തെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ശരീരം നോക്കിയില്ലെങ്കിൽ നമുക്ക് കുറേ അധികം കുറേയധികം ബുദ്ധിമുട്ടുകളുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടതുണ്ട് ദീർഘ ദൂര യാത്രകൾ ഫ്രണ്ട്സുമായി കൂട്ടുകൂടി പോകുക എന്നുള്ളത് ഒരു നല്ല ഒരു എൻജോയ് ആനന്ദകരമായ ഒരു സംഭവം ഒരു പ്രോഗ്രമായിരുന്നു ഞങ്ങൾ ഉള്ളത് അത് നമുക്ക് വളരെയധികം മനസ്സിനും ശരീരത്തിനും സാമൂഹിക മാനസികമായും എല്ലാം നല്ല കാര്യങ്ങളും നമുക്ക് പ്രയോജനം ചെയ്യുമായിരുന്നു അങ്ങനെ പോവുക എന്നുള്ളത് ഞങ്ങളുടെ അവധി സമയ അവധി അവധി ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു പ്രധാന വിനോദപാദോപാധി ആയിരുന്നു അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്രകൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഒപ്പളും ബൈക്ക് ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ ജാഗ്രതയും അതുപോലെ കെയറും അതുപോലെ സൂക്ഷ്മതയിലും വേണം നമ്മൾ ഓടിച്ചു കൊണ്ടു പോകാൻ ആയിരുന്നു അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ അപകട സധ്യത എപ്പോഴും വളരെ കൂടുതലാണ് കാരണം നോക്കി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നു ചേരാമായിരുന്നു